ഹലോ ചില സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ പഴയ ഈമെയിൽ ഐ ഡിയായ ഹരി വൺ ഫോർ സിക്സ് എന്ന് പറയുന്ന ഈമെയിൽ ഐ ഡി ചില സങ്കേതിക കാരണങ്ങളാൽ ചില സങ്കേതിക കാരണങ്ങളാലത് അത് ഡിലീറ്റാക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായി അപ്പോൾ എൻ്റെ പാൻ കാഡ് ആധാറ് ലൈസൻസ് മറ്റെല്ലാ ആധാറ് പാൻ കാഡ് ലൈസൻസ് ഐ ഡി കാഡ് വോട്ടേഴ്സ് ഐ ഡി ഇങ്ങനത്തെ എല്ലാ വിശദ പേഴ്സണൽ ഡീറ്റൈൽസും ആ ഒരു ഈമെ ഈമെയിൽ ഐ ഡിയായ ഹരി ഫോർ വൺ ഫോർ സിക്സ് എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിലാണ് രജിസ്റ്ററ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോളെനിക്ക് ആ ഈമെയിൽ ഐ ഡി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഒരു പുതിയ ഈമെയിൽ ഐ ഡി തുടങ്ങേണ്ടയൊരു സാഹചര്യം വന്നു അപ്പോൾ എൻ്റെ പാൻ കാഡ് എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പാൻ കാഡുപയോഗിക്കേണ്ട പാൻ കാഡിന്റെയൊരാവശ്യകത വന്നു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ പാൻ കാഡിലോട്ട് എന്റെ പുതിയ ഈമെയിൽ ഐ ഡിയായ എന്റെ പുതിയ ഈമെയിൽ ഐ ഡിയായ ഹരി ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുന്ന ഈമെയിൽ ഐ ഡി എൻ്റെ പുതിയ പാൻ കാഡ് പാൻ എൻ്റെ ബാങ്കിലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പാൻ കാഡ് പാൻ കാഡിൽ പുതിയ ഈമെയിൽ ഐ ഡിയായ ഹരി ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡി അപ്പ് ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനാഗ്രഹിക്കുന്നു ഇതിന് ഞാനെന്ത് ചെയ്യണമെന്ന് എനിക്ക് ചില നിർദ്ദേശങ്ങൾ ആവശ്യമാണ് അതിന് എൻ്റെ കോൺടാക്റ്റ് വിവരങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടീട്ടാണ് ഞാനാഗ്രഹിക്കുന്നത് എൻ്റെ പുതിയ ഈമെയിൽ ഐ ഡി അപ്പ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടീട്ട് ഞാനീ ഏത് ആപ്പാണ് ഉപയോഗിക്കേണ്ടത് അതെങ്ങനെ എനിക്ക് സ്വയമായിട്ട് ചെയ്യാം അത് അതല്ലെങ്കിൽ എനിക്ക് വേറെ അക്ഷയയിലോ മറ്റെന്തേലോ പോയി ചെയ്യണമോ അതിനെന്തെങ്കിലും സാമ്പത്തികമായിട്ട് ചിലവുകൾ വരുന്നുണ്ടോ ഇതിനെക്കുറിച്ചെല്ലാം എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇതിനെന്തൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞാൻ പാലിക്കേണ്ടതായിട്ടുണ്ട് എനിക്കെത്രയും പെട്ടന്ന് തന്നെ എൻ്റെ പാൻ കാഡ് എൻ്റെ പുതിയ ഈമെയിലായ ഈമെയിൽ ഐ ഡിയായ ഹരി ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുന്ന ഈമെയിൽ ഐ ഡിയിൽ അപ്പ്ലോഡ് അപ്പ്ലോഡ് അപ്പ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാനാഗ്രഹിക്കുന്നു ഇതിനായെനിക്ക് ഞാനെന്തൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ചെയ്യണമെന്നാഗ്രഹി അറിയുന്നതിനായിട്ട് ഞാനാഗ്രഹിക്കുന്നു എന്റെ ആധാർ ഈമെയിൽ പാൻ കാഡ് എന്നീ പുതിയ എന്നീ എല്ലാ എല്ലാ ആവശ്യമായ പേഴ്സണലാവശ്യമായിട്ടുള്ള എല്ലാ ഐഡൻ്റിറ്റി കാഡുകളും ഈ ഒരു ഈ പഴയ ഇമെയിൽ ഐ ഡിയിലാണ് ഞാനാഗ്ര അപ്പ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പാൻ കാർഡിൻ്റെ പാൻ കാർഡിന് എനിക്ക് ബാങ്കുമായിട്ട് പല ബാങ്കിൻ്റെ ചില ഇടപാടുകളുടെ ഭാഗമായിട്ടെനിക്ക് പാൻ കാഡ് വളരെ അത്യാവശ്യമായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടയൊരു സാഹചര്യം വന്നു അപ്പോൾ ബാങ്കിൽ പോയപ്പോൾ അവരാണ് പറഞ്ഞത് അവർ പറഞ്ഞ പറഞ്ഞതാണ് ഈമെയിൽ ഐ ഡി പഴയ ഈമെയിൽ ഐ ഡിയാണ് കിടക്കുന്നത് അപ്പോൾ പുതിയ ഈമെയിൽ ഐ ഡിയാക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പം പുതിയ ഈമയിൽ ഐ ഡിയാക്കുന്നതിന് വേണ്ടീട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തത് അപ്പം അതിന് വേണ്ടീട്ട് ഞാനെന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പ്രോസിജിയേഴ്സ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതിന് വേണ്ടീട്ട് എത്ര സമയം എടുക്കും എനിക്ക് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ പാൻ കാഡ് ശരിയാക്കേണ്ട സാഹചര്യമുണ്ട് പക്ഷേ ഇതിന് വേണ്ടീട്ട് പക്ഷേ ഞാനന്വേഷിച്ചപ്പോൾ എനിക്കൊരു അവർ പറഞ്ഞത് ഒരു ഒരുമാസത്തെ ഒരുമാസം ഈമെയിൽ ഐ ഡി പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തുവരാനായിട്ട് ഒരുമാസമെങ്കിലും എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് അറിയണം ഇത് എനിക്കൊരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് ചെയ്ത് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനുള്ളിൽ ഇതെങ്ങനെ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സ്വയമായിട്ട് എങ്ങനെ ചെയ്ത് തീർക്കാമെന്നതിൽ സാമ്പത്തികമായിട്ട് ചിലവ് വരുന്നതുണ്ടോ പാൻ കാഡിൻ്റെ പാൻ കാർഡായിട്ട് അപ്പ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ടെന്തെങ്കിലും സാമ്പത്തികമായിട്ട് ചിലവ് വരുന്നുണ്ടോ ഇതിനെന്തൊക്കെ പ്രോസിജിയേഴ്സുണ്ട് എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ട് പുതിയ ഇമെയിൽ ഐ ഡി അപ്പ്ഡേറ്റ് ചെയ്യുന്നതിലെന്തെങ്കിലും കാലതാമസമുണ്ടോ അത് ഭാവിയിലെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതാണോ ഈ സാഹചര്യങ്ങളെയൊക്കെക്കുറിച്ച് എനിക്കറിയുന്നതിനായിട്ട് ഞാനാഗ്രഹിക്കുന്നു ഇതിനായി എനിക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ആവശ്യമാണ് ഇതിനായി നിങ്ങളെന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു